ആ ആ ഉണ്ട്

ആ അതെ അതെയോ നമുക്ക് നല്ലത് ഇപ്പോൾ കാസർഗോഡ് ബിന്ദു ജ്വല്ലറി പിന്നെ ബിന്ദു ഉണ്ട് സിറ്റി ഗോൾഡ് ഉണ്ട് പിന്നെ ആ എല്ലാം നല്ലത് തന്നെ എല്ലാ ജ്വല്ലറിയും നല്ല സെലക്ഷൻ ഉണ്ട് ആ ഉം ആ അതെ ആ ഉണ്ട് ആ മുല്ലപ്പൂ മാല ഉണ്ട് ഏതാണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം ഉള്ളത് അത് എല്ലാം ഉണ്ട് ആ അങ്ങനത്തെ നോക്കാം എങ്ങനത്തെ വേണമെങ്കിലും നോക്കാം അവിടെ ഡിസൈൻ ഉള്ളതും ഏത് വേണമെങ്കിലും ബിന്ദുവിൽ വന്നെങ്കിൽ എല്ലാ ഡിസൈനും കിട്ടും ഉം ആ ആ മുമ്പ് പറഞ്ഞത് ആ അതെയോ അപ്പോൾ ആ പൈസ എല്ലാം എങ്ങനെ കൊടുക്കുന്നത് ഇത് ക്യാഷ് അതെയൊ ആ കുറേ എടുക്കുന്നോ ആ ആ അതെയോ അല്ലേ ആ അതെയോ അല്ലേ ആ ആരാണ് ഇത് ഇത് ആ നിങ്ങളെ ആ പെൺകുട്ടി ആണോ ആൺകുട്ടി ആണോ കല്യാണപ്പെണ്ണോ ആ അപ്പോൾ കുറച്ച് വേണമല്ലോ അതെ ആ അപ്പോൾ ആ ആ അതെ ഡിസൈന് ആ എല്ലാം ഉണ്ട് മുല്ല ആ ഇത് ഉണ്ട് മുല്ലമൊട്ട് മാല ഉണ്ട് നെക്ലേസ് പിന്നെ ആ ഇങ്ങനത്തെ എന്തല്ലോ അത് ഉണ്ട് ആ മറ്റേ ഇത് ഉണ്ട് കാശിമാല ഉണ്ട് ആ കാശിമാല പിന്നെ വള ആ ആ ആ ആ പിന്നെ ആ ആ വള വള മേടിക്കുന്നില്ലേ അല്ല കൈ ചെയിനോ അതെയോ ആ ആ ആ ആ പിന്നെ ആ പിന്നെ റിംഗ് മോതിരം വേണോ ആ ഇത് ഇത് വാങ്ങിക്കുന്നോ കാലിൻ്റെ കാപ്പാടം പാദസരം ആ അതെയോ ആ അപ്പം എല്ലാം കൂടെ ആവുമ്പോൾ കുറേ ആവുമല്ലോ അതെ ആ ആ ആ ആ ആ ആ അതന്നെ ആ ആ എന്നാൽ പിന്നെ ഇങ്ങോട്ട് പിന്നെ കാലിൻ്റെ മോതിരം ഉണ്ടല്ലോ അതും വാങ്ങുന്നുണ്ടോ ആ അതെ അല്ലേ ആ സ്വർണ്ണം മാത്രം അല്ല വെള്ളിയുടെ ഇത് എടുക്കുണ്ണോ കാൽ മോതിരം എങ്ങനെയാണ് എടുക്കുന്നത് വെള്ളി ആണ് അതെ അല്ലേ ആ ആ ആ ആ ആ അതെ ആ ആ ആ അതെ അല്ലേ ആ കമ്മൽ എങ്ങനെ കൂടും ഇപ്പോൾ കൂടും ഇത് അല്ലേ ഇത് അത് തന്നെ അത് തന്നെ ആ ആ ആ ആ അന്ന് കല്ല്യാണത്തിന് സ്വർണ്ണം തന്നെ വേണമല്ലോ ആ ആ ആ അത് തന്നെ ആ ആ അപ്പോൾ ആ ആ ആ ആ ആ മാല എത്ര വാങ്ങിക്കുന്നത് ഏതെല്ലാം നെക്ലേസും പിന്നെ ആ ആ ആ കാശി മാല വാങ്ങിക്കുന്നില്ലേ അതെ ആ ആ വള അഞ്ച് ആ അത് എങ്ങനെ ഇപ്പോൾ ഒരു അഞ്ച് പവനോ അല്ല ജാസ്തി എടുക്കുന്നുണ്ടോ ഇല്ല അഞ്ച് അഞ്ച് പവൻ ആയിട്ട് എടുക്കാനാ ആ ആ ആ ശരി എന്നാൽ അപ്പോൾ നീ വന്നെങ്കിൽ മതി എന്നാൽ ഒന്നിച്ചിട്ട് പോവാം കേട്ടോ ഉം ഉം ഉം ആ ഓക്കെ ആ